ഇത് നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ലോണുകളും മറ്റും കോപ്പറേറ്റീവ് ബാങ്കുകളെ അങ്ങനെ ദേശസാൽകൃത ബാങ്കുകളിൽ നമുക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് അങ്ങനെ ഈ ലോണുകൾ കൊണ്ട് നമ്മൾ കാർഷിക മേഖല പല പല കാർഷിക മേഖലകളും നമ്മൾ ഉത്തേജിപ്പിച്ചു കൃഷികൾ ചെയ്തു മുന്നോട്ട് വരികയാണ് അപ്പം എല്ലാ രേഖകളൊന്നും കേന്ദ്ര സർക്കാരിൻ്റെയാണെന്ന് പറഞ്ഞാലും കേരള സർക്കാരിൻ്റെയാണെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ അവര് സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് ലോണുകളൊക്കെ കിട്ടുന്നുണ്ട് ആ ലോണുകളെല്ലാം നമ്മൾ തിരിച്ചടയ്ക്കുകയും വീണ്ടും വീണ്ടും നമുക്ക് ലോണ് കിട്ടുകയും ആ ലോൺ മുഖാന്തരം നമ്മൾ കാർഷിക മേഖല വളരെ അഭിവൃദ്ധിപ്പെടുത്തി നമ്മൾ കൃഷി ചെയ്യുന്നു ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇതായി നിൽക്കുന്നത് നമ്മുടെ കാർഷിക കാർഷിക ലോണുകളാണ് ഈ കാർഷിക ലോണ് എല്ലാ രീതികളിൽ നിന്നും ചെറിയ ചെറിയ ബാങ്കുകളിൽ നിന്നും കർഷകരെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദേശസൽക്കൃത ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലോണുകൾ തരുന്നതും നമ്മൾ ആ ലോണ് ലോണും പലിശയും കൃത്യമായി നമ്മൾ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല ബാങ്കുകളും നമുക്ക് കൃഷി ലോൺ തരുവാനായിട്ട് മടിക്കുന്ന ബാങ്കുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് എത്രയും എത്ര രൂപ വേണം നമ്മളെ അത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ബാങ്ക്കളുണ്ട് ഇപ്പം നമുക്ക് ബാങ്കുകൾ എല്ലാ ബാങ്കുകളെ സംബന്ധിച്ചു പറയാൻ നമ്മൾ കാർഷിക മേഖലെ നമുക്ക് ലോണ് തരുന്നു അതേപോലെ നമ്മൾ തിരിച്ചടയ്ക്കുന്നു ഇതെല്ലാം നമ്മുടെ കാർഷിക മേഖല തന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ബാങ്കുകളെല്ലാം നമുക്ക് ലോൺ തരികയും നമ്മൾ ആ ലോണുകൾ എല്ലാം തിരിച്ചടയ്ക്കുകയും അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേരെ നമുക്ക് കാർഷിക മേഖല ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് നൽകി നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാനായിട്ട് ശരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കാർഷിക ഈ ലോണുകൾ മുഖാന്തരം ലോണ് കിട്ടുന്നത് മുഖാന്തരമാണ് അപ്പ ആ രീതിയിൽ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ബാങ്കുകളെല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബാങ്കുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാർഷിക മേഖല ഇത്രയും വിപലപ്പെടുത്തി നമുക്ക് കൊണ്ടുപോവാൻ കൊണ്ടു പോകാൻ പറ്റുന്നത് അതുകൊണ്ട് കാർഷിക മേഖല ഇത് തന്നെ അല്ല ലോണുകൾ വളരെയധികം എല്ലാ ബാങ്കുകളും നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഇത് കാർഷിക മേഖല മുന്നോട്ട് കൊണ്ടു പോവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് അറിയാം കാർഷിക മേഖല കപ്പ കൃഷിയുണ്ട് നെൽകൃഷി ഉണ്ട് വാഴകൃഷി അതേപോലെ തന്നെ വളരെയധികം നമുക്ക് പ്രയോജനകരമായിട്ടുള്ള നമുക്ക് ലാഭകരമായിട്ടുള്ള പല കാർഷിക മേഖലകളിലും ഈ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന ലോണ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വരുന്നത് ഇ ലോൺ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നുണ്ട് ഗവൺമെൻറ് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സപ്പോർട്ടും പ്രകാരം ബാങ്കുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ അവരെ നമ്മളെ നമ്മളെ വീട്ടിൽ വരെ എത്തി നമ്മളെ അവർ നമ്മളെ സപ്പോർട്ട ചെയ്യുകയും നമുക്ക് വലിയ താമസങ്ങൾ താമസ തടസ്സങ്ങളില്ലാത കൊണ്ട് നമുക്ക് ലോൺ തരുവാനായിട്ട് അവർ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി നമുക്ക് അവരെ ഒത്തിരി നമ്മൾക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് ഓരോ ഉദ്യോഗസ്ഥന്മാരും ലോൺ തരുവാനും അല്ല അങ്ങനെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുവാനും ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുടുംബപരമായിട്ട് തന്നെ നമുക്ക് ഒരു സമ്പന്നതയിൽ എത്താൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള പൈസ കൊണ്ട് നമുക്ക് കാർഷിക മേഖല ഒത്തിരി ഉത്തേജിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കുകളുടെ ലോണ് വളരെയധികം അത്യന്താപേക്ഷിതം തന്നെയാണ് ബാങ്കുകൾ നമുക്ക് എല്ലാ കർഷകർക്കും ലോൺ നൽകട്ടെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് നൽകട്ടെ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരി സപ്പോർട്ടുകൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് വരുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാർഷിക മേഖലയിലും എല്ലാ കർഷകരെയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും അവരെ ഒത്തിരി നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ കാർഷിക മേഖല മേഖലയെ സപ്പോർട്ട ചെയ്യുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും നമ്മള എല്ലാ സർക്കരുകളെയും ആ ഉദ്യോഗസ്ഥന്മാരെയും ഒത്തിരി നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാവരും നമുക്ക് ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒത്തിരി ലോണുകൾ നൽകി എല്ലാ കർഷകരെയും ഒത്തിരി സപ്പോർട്ട് ചെയ്തു മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി